പാട്ട് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ പാടാനൊന്നും അറിയത്തില്ല പക്ഷെ പഠിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു ബട്ട് പാടാനുള്ള വലിയ കഴിവൊന്നും ഇല്ലാത്തതു കൊണ്ട് അതിനൊന്നും പോയില്ല പിന്നെ ഈ ടീ വിയിൽ വരുന്ന സിനിമകളിലും അതിലുള്ള കുറേ പാട്ടുകളൊക്കെ കേട്ട് ഇങ്ങനെ ഇരുന്നു വെറുതേ ഇങ്ങനെ പാടി നോക്കും ഇപ്പോൾ ഉദാഹരണത്തിനാണെങ്കിൽ നമ്മളുടെ സീരിയൽ പോലെ തന്നെയാണ് ഇപ്പം എപ്പോഴും ഉണ്ടാകും മറ്റേ ടോപ് സിംഗർ അങ്ങനെ ഓരോരോ പാട്ടുകൾ സ്റ്റാർ സിങ്ങ് അങ്ങനെ കുറേ എണ്ണമുണ്ട് ഫ്ലവേസിനകത്തുണ്ട് ടോപ് സിംഗർ അതിനകത്ത് കുറേ ചെറിയ കുട്ടികളും അത്യാവശ്യം ഒരു പത്ത് പതിനഞ്ചു ഏജിലുള്ള കുട്ടികളൊക്കെ പാടുന്നത് അവരുടെ പാട്ടൊക്കെ നല്ല ഇതാണ് അതേപോലെ തന്നെ സീ കേരളത്തിൻ്റകത്തുണ്ട് അതേപോലെ അങ്ങനെ കുറേ ചാനലിൻ്റകത്തുണ്ട് ഏഷ്യാനെറ്റിനകത്തുണ്ട് ഇവരുടെയൊക്കെ പാട്ടെന്നു പറയുമ്പോൾ നല്ല ഇതിൽ ഞാൻ ഇരുന്നു കേൾക്കും പിന്നെ എം ജി ശ്രീകുമാർ പുള്ളീൻ്റെ പാട്ടൊക്കെ അടിപൊളി ആണ് അത് പുള്ളി തന്നെ പാടുന്നതും അങ്ങനെ കുറേ സിനിമകളിലൊക്കെ വന്നിട്ടുണ്ട് അത് ഞാൻ ഇരുന്നു ഫുൾ ടൈം ഇരുന്നു കേൾക്കും എന്നിട്ട് അതിങ്ങനെ വെറുതെ നമ്മൾ ഇങ്ങനെ പാടി നോക്കും അതേപോലെ യേശുദാസ് ഇവരുടെയൊക്കെ പാട്ടെന്നു പറയുമ്പം നല്ല ഈണത്തിലും അവരെന്ന് പറയുമ്പോൾ ഭയങ്കര ഇതിൽ പെർഫെക്ട് ആയിട്ട് പാടുന്നവരാണ്